ഗുഡ് ആഫ്റ്റർ നൂൺ പറയൂ ആരാണ് വിളിക്കുന്നത് ആ ഓക്കെ സിൻഷ എന്തായിരുന്നു പ്രശ്നം ഏത് സബ്ജക്ട് ആണ് അപ്പം മനസ്സിലാവാത്തത്

എന്താണ് അതിൽ ഇഷ്യൂസ് എന്താ വരുന്നത് മിസ്സ് ഡിസ്ക്രിപ്ഷൻ ആ അതുശരി അതായത് മിസ്സ് അത് കാര്യമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരുന്നില്ല ഉണ്ടായത് അല്ലേ ആ കൂടുതലായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സ് വർക്ക് കുറവാണ് തരുന്നത് എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഹോം വർക്സ് ആയിരിക്കും കൂടുതൽ തരുന്നുണ്ടാവ അല്ലേ അത് ശരി ഫോണിൽ കളിക്കുകയാണോ ആ ഞങ്ങൾ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്ന ഞങ്ങൾ ഇൻസ്റ്റിട്യൂട്ടിൽ എന്തായാലും അങ്ങനത്തെ രീതിയിൽ ഒന്നും നമ്മൾ പോസ്റ്റ് ഇരിക്കുന്നില്ല അങ്ങനത്തെ ടീച്ചേഴ്സ് അപ്പം ഞാൻ എന്തായാലും ആ ടീച്ചറിനെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്താണ് കാര്യങ്ങളെന്ന് ആദ്യം അന്വേഷിക്കാം എന്നേന് ശേഷം നമുക്ക് അതിനുള്ള തീരുമാനം എടുക്കാട്ടോ

ഓക്കെ ഓക്കെ